പാട്ടെപ്പോഴും മാനസിക ഉല്ലാസത്തിന് നല്ലതാണെന്നാണ് ആരോഗ്യവിദഗ്ദർ പോലും അഭിപ്രായപ്പെടുന്നത് പാട്ട് പാടുന്നവരായാലും കവിത എഴുതുന്നവരായാലും ഒക്കെ കലാകാരന്മാരാണല്ലോ അപ്പോൾ ഒരു കല എന്നുള്ള രീതിയിൽ വളരെ ഗാഹ്യമായിട്ട് വളരെ ആന്തരികമായിട്ട് ഗാഹ്യമായിട്ടൊക്കെ പാട്ട് പഠനത്തെ ആശ്രയിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടോക്കെ പാട്ട് പഠിച്ച് തുടങ്ങാനാഗ്രഹക്കുന്നവരാണെങ്കിൽ അതിന് ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയേ ഉള്ളു കാര്യം നമുക്ക് പാട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും സങ്കടാവസ്ഥയിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സങ്കടം അതിലൂടെ തന്നങ്ങ് ഒലിച്ച് പോകുന്നത് ആയിട്ട് നമ്മളുടെ മനസ്സിൽ ഒരു തോന്നൽ തോന്നും ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു പകുതി ഭാരം പകുതി മനസ്സിൻ്റെ ഭാരം അവിടെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പാടാനുള്ള കഴിവ് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ടാസ്വദിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ് ഒരു കാരണവശാലും അതിനെ അടിച്ചമർത്തപ്പെടാതെ അതിനെ വളരെ ഊർജ്ജസ്വലമായിട്ട് വളരെ ആത്മാർഥമായിട്ട് പ്രവർത്തിച്ച് ആ ഒരു കഴിവിനെ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത് അത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശീലിക്കേണ്ട ഒരു കാര്യമാണ് അത് അല്ലെങ്കിൽ തന്നെയും എന്തെങ്കിലും പ്രായമായിരിക്കുന്ന വേളയിൽ ഒക്കെ തന്നെയും നമുക്ക് ഈ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പാടുക എന്നുള്ളൊരു പ്രക്രിയ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളു